ചെറിയ തരത്തിലുള്ള ഒരു ബിസിനസ്സിനേക്കാൾ കുറച്ച് ആളുകളെ വെച്ച് ഒരു ഫാഷൻ ബ്രാൻഡ് പോലെ ആയിട്ടാണ് ഞാൻ ഇത് നടത്തുന്നത് കാരണം നമുക്ക് വെറും സ്റ്റിച്ചിങ്ങ് മാത്രമൊന്നും അല്ല ആരി വർക്ക് പോലെയുള്ള ബ്രൈഡൽ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്നുണ്ട് അത്

ഫാബ്രിക് പെയിൻറിൽ വർക്കുകൾ ചെയ്യുന്ന മ്യൂറൽ വർക്കുകളും നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള കുറച്ച് പേരെ കണക്റ്റ് ചെയ്ത് കൊണ്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്

ഇത് വളരെയധികം ഒരു ഉപകാരപ്രദമാണ് കാരണം അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒരു സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ അവരു ഡ്രെസ്സിൽ അവർ ആവശ്യപ്പെടുന്ന വർക്ക് അത് ഇത്തരത്തിലുള്ള വർക്കുകളായിക്കോട്ടെ പ്രിൻറ്ററിങ് വർക്ക് ആയിക്കോട്ടെ ഡ്രോയിങ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള എല്ലാ വർക്കുകളും ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കടയ്ക്ക് വളരെയധികം

എൻക്വരീസ് വരാറുണ്ട് അത് നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നമ്മൾ കൂടുതലും ലേഡീസിൻ്റെതാണ് അടിച്ച് കൊടുക്കുന്നത് ബ്ലൗസൊക്കെ സാധാരണ ഒരു ബ്ലൗസ് ആണെങ്കിൽ അതിന്